അതെ ഗുഡ് മോർണിംഗ് ആരാണ് ഓക്കെ ഓക്കേ അഡ്മിഷന് വേണ്ടിയിട്ട് ആണല്ലേ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് വൺ ലാക്ക് ആണ് വരുന്നത് അത് രണ്ട് രണ്ട് പ്രാവശ്യം അത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് പിന്നെ മാനേജ്

അത് നെക്സ്റ്റ് ഇയർ എങ്ങനെയാണ് ചിലപ്പോൾ ചേഞ്ച് ആകും ചിലപ്പോൾ സെയിം ആയിരിക്കും ആ മാനേജ്മെൻറ്റ് ആ ഉണ്ടാകും ഡോണേഷൻ കൊടുക്കേണ്ടി വരും നിങ്ങള് അത് ഒരു ട്വൻറ്റി തൗസൻഡ് നിങ്ങള് കൊടുക്കണം ഡോണേഷൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസ് ഒക്കെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട് സ്വിമ്മിംഗിന് കൊടുക്കുന്നുണ്ട് അത് പോലെ കരാട്ട മ്യൂസിക് ഉണ്ട് പിന്നെ ഡാൻസ് ഉണ്ട് സ്പോർട്സ് ആണെങ്കില് സ്പോർട്സില് ഐറ്റംസ് ഒക്കെ ഇവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അത് സ്വിമ്മിംഗ് ആണെങ്കില് മാത്രമാണ് എക്സ്ട്രാ ഫീസ് വരുന്നുള്ളത്

സ്വിമ്മിംഗ് എന്ന് വെച്ചാല് പിന്നെ ഇപ്പോൾ നമ്മള് ട്രെയിനറെ സെലക്ട് ചെയ്തിട്ട് ഇല്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങള് കൂടി നോക്കിയിട്ട് ആയിരിക്കും എടുക്കുക ആ അഡ്മിഷൻ അഡ്മിഷൻ തുടങ്ങാറായിട്ട് ഇല്ല അഡ്മിഷൻ തുടങ്ങുന്ന ടൈമ് ആകുമ്പഴത്തേന് അറിയിക്കാം ഓക്കെ നിങ്ങള് സ്കൂൾ മെയിൽ ഐ ഡി അറിയാമല്ലോ അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ അഡ്രസ്സ് ഒക്കെ ഇമെയിൽ ഐ ഡി ഒക്കെ അയച്ച് ഇട്ടാൽ മതി നമ്മള് ടൈമ് ആകുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ പിന്നെ നിങ്ങള് വേറെ ഏതെങ്കിലും കുട്ടികളോ മറ്റോ ഉണ്ടെങ്കില് ഇങ്ങോട്ടേക്ക് റഫറ് ചെയ്യാവുന്നത് ആണ് ഇവിടെ സീറ്റ് ഒഴിവ് ഉള്ളത് ആണ് അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും സീറ്റ് ഒക്കെ ആവശ്യം ഉള്ളവര് ആണെങ്കില് പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞോളൂ

അഡ്മിഷൻ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഫിക്സ് ആയിട്ട് ഇല്ല ഫിക്സ് ആയതിന് ശേഷം തുടങ്ങുവായിരിക്കും തുടങ്ങി കഴിഞ്ഞാൽ പറയാം ഡേറ്റ് എങ്ങനെയാന്ന് ഉള്ളത് അപ്പോൾ മാത്രമെ ഫിക്സ് ആക്കാൻ പറ്റൂ ഓക്കെ ബിസിയാണ് ഓക്കെ